ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെയും വിശ്വസിക്കരുത് നമ്മൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല ഇപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ കൂടപ്പിറപ്പിനെ പോലും വിശ്വസിക്കാൻ പറ്റില്ല പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണ് നമുക്ക് ആരുടെ അടുത്തു നിന്നാണ് നമുക്ക് ചതി വരിക എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ഇപ്പം വിശ്വസിച്ചു പറഞ്ഞു എന്ന് വെച്ചോ ഇപ്പോൾ നമുക്ക് നമ്മൾ ആരോടും പറയാൻ പറ്റാത്ത ഒരു കാര്യം ആണെന്ന് വെച്ചോ അതിപ്പോൾ നമ്മൾ വിശ്വസിച്ച് ഇപ്പോൾ ഒരാളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഇപ്പോൾ വേറെ ഒരാളോട് പറയാം അതായത് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റാത്ത കാര്യം ആയിരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ അവരോട് പറയുന്നത് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഇപ്പോൾ വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒട്ട് അറിയില്ല നമ്മൾ ഇപ്പോൾ ആരുടെ എങ്കിലും വഴി അറിഞ്ഞിട്ട് അപ്പോൾ അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും ഞാൻ പറഞ്ഞതല്ല എന്ന് പറയും പക്ഷേ നമ്മൾ അവരോട് മാത്രമേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ എന്ന് നമുക്ക് അറിയാം അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ ആരെയും വിശ്വസിച്ച് ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് നമ്മൾ ഒരു കാര്യം പറയാൻ പാടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ വിന വരുന്നത് നമുക്ക് ഇപ്പോൾ പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് പേഴ്സണൽ ആയിട്ട് മാത്രം ഇരിക്കുക അതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മടെ അമ്മേനോടോ അച്ഛനോടൊ പറയാം പക്ഷേ അതുപോലെ നമ്മൾ വേറെ ഒരാളോടും നമ്മളിപ്പോൾ എത്ര ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരോടും പറയാൻ പാടില്ല